ആറ് നാല് രണ്ടായിരത്തി ഏഴ് നാല് മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ആറ് നാല് രണ്ടായിരത്തി ഇരുപത് എട്ട് എട്ട് രണ്ടായിരത്തി പതിനാറ് ഒമ്പത് നാല് രണ്ടായിരത്തി പതിമൂന്ന് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്